ഇപ്പോൾ വയനാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്കൽ ഗുഹയാണ് ഇടയ്ക്കൽ ഗുഹയിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ പണ്ടുളള ആൾ ആൾക്കാർ ശിലായുഗ ആൾക്കാർ ലിപികൾ അവരുടെ ലിപികൾ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ കാണാനും എല്ലാം സാധിക്കുന്നുണ്ട് നമ്മളിപ്പം ആ അമ്പലവലാ ആ അവിടെ മേലേക്കയറി കഴിഞ്ഞാൽ നമുക്കത്തിനകത്ത് കയറിയിട്ട് അവരുടെയെല്ലാം അവർ താമസിച്ച ആ സ്ഥലവും എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണാൻ പറ്റും പിന്നെയുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ക്ഷേത്രങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഇപ്പം മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ തിരുനെല്ലി അമ്പലമാണ് തിരുനെല്ലി അമ്പലത്തിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഒരമ്പലമാണ് പിന്നെ തൃശ്ശിലേരി അമ്പലമുണ്ട് അതായത് ശിവൻ്റെ ഒരു അമ്പലമാണ് തൃശ്ശിലേരി ഉള്ളത് പിന്നെയുള്ളതെന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ മ്യൂസിയങ്ങൾ കാര്യങ്ങൾ ഒന്നുമില്ല കോട്ടകളൊന്നും വയനാട്ടിൽ എവിടെയും അങ്ങനെ ഇല്ല പിന്നെയുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മീൻമുട്ടിയോ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട് പിന്നെ നമുക്ക് വിനോദസഞ്ചാരത്തിനൊക്കെ പറ്റിയ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ മീൻമുട്ടി ലക്കിടി വ്യൂ പോയിൻറ്റ് അതായത് നമ്മളെ താമരശ്ശേരി ചൊരംന്നൊക്കെ പറയും ആ ചൊരത്തിൽ ചെന്ന്നിന്ന് നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നാലാൾ വ്യൂ ആണ് അപ്പം നല്ല മഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ വെള്ളച്ചാട്ടങ്ങൾ ഇപ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം മീൻമുട്ടി വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട് ഇവിടെയൊക്കെ നമുക്ക് പോയിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്